ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ഞാൻ കൂടുതലും എന്താ പേപ്പറ് പേപ്പറിലാണ് ഔട്ട് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ഒരു ചിത്രം വരക്കുന്നതിനാണ് സാധാരണയായിട്ട് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കണം ഇപ്പോൾ വരയ്ക്കാൻ വേണ്ട പെൻസില് ക്രയോൺസ് സ്കെച്ചുകള് അങ്ങനെത്തെ എല്ലാം കാര്യങ്ങൾ പേപ്പറ് എല്ലാം അവൈലബിള് ആയിരിക്കണം ഇനി ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്ത് അത് അതിന് വേണ്ട സംഭവങ്ങളൊക്ക നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം പിന്നെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കണം ഇതൊക്കെയാണ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഏറ്റവും നന്നായിട്ട് അടുത്തിടക്ക് വരച്ചത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ ഒരു പേപ്പറിലാണ് വരച്ചത് ഈ പേപ്പറിൽ വരച്ചത് എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് എനിക്ക് ഫീല് ചെയ്തത് ഒരു റോസാപ്പൂ വരച്ച് ഇതായിരുന്നു പിന്നെ അല്ലാതെ തന്നെ അച്ചടിച്ച് വരച്ച് കുറേയൊക്കെ വരച്ചിട്ടുണ്ട് അങ്ങനെ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈശോയുടെ ഒരു പിക്ചർ വരച്ചതാണ് കുറേക്കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ചിത്രത്തിന് വരയ്ക്കുമ്പോൾ അത് കൂടുതലും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി നല്ലപോലെ യൂസ് ചെയ്യണം അങ്ങനെ യൂസ് ചെയ്ത് ഒരു പിക്ചറ് ആദ്യം എങ്ങനെയാണ് എന്താണ് വരയ്ക്കാനുദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊരു ഡോട്ട് ഇട്ട് ഡോട്ട് ഇട്ടൊക്കെ ആണെങ്കിലും അത് നമുക്ക് തെറ്റിപ്പോകുവാ അങ്ങനെയൊരിത് വരരുത് തെറ്റിപ്പോകാതിരിക്കാൻ നല്ല പോലെ ഡോട്ട് ഇട്ടൊക്കെ ആണെങ്കിലും വരക്കുക ഇപ്പം ഞാൻ അതാണ് ചെയ്യുന്നത് ഡോട്ട് ഇട്ടൊക്കെ വരച്ച് അപ്പോൾ നമ്മൾ കുറെ ഔട്ട്ലൈൻ ആയി പോവാതെ നമ്മുടെ പിക്ചറിനെ കീപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കുറച്ചുകൂടെയും വേറെ രീതികൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടൊരു പ്ലാന് ഉണ്ടാവണം എന്താണ് വരയ്ക്കേണ്ടത് ഏത് രീതിക്കാണ് കൊണ്ടുപോവുന്നത് ഇനി ഒരു രീതിക്ക് വരച്ചിട്ട് അത് തെറ്റിപോയാൽ അതിന് വേറെ ഏത് രീതിക്കൊക്കെ കൊണ്ടു പോകാം എന്നുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മുടെ ചിന്തനെ അങ്ങനെ ആക്കി വെച്ചിട്ട് ഒരു പേപ്പറിലൊക്ക നമ്മൾ വരയ്ക്കുമ്പം നമുക്ക് കറക്റ്റ് ആ സംഭവം നമ്മളെന്താണ് മനസ്സിലുദ്ദേശിച്ചത് അത് പേപ്പറിലേക്ക് വരും